ഞാൻ താമസിക്കുന്നത് ഒരു ഗ്രാമത്തിലായത് കൊണ്ട് തന്നെ ഇവിടെ ഒട്ടുമിക്ക എല്ലാവരും തന്നെ ലോണൊക്കെ എടുക്കാറുണ്ട് മെയ്ൻ ആയിട്ട് എടുക്കുന്നത് കുട്ടികളെ പഠിപ്പിക്കാൻ കല്യാണത്തിന് വേണ്ടി വീട് പണിയാൻ വേണ്ടിയി ട്ട് പിന്നെ വല്ല സ്ഥാപനം എന്തെങ്കിലും തുടങ്ങാൻ അങ്ങനെ ഒക്കെ മിക്ക കാര്യത്തിന് എല്ലാവരും ലോണെടുക്കാറുണ്ട് ലോണെടുക്കാൻ പോകുമ്പം ആദ്യം ബാങ്ക് വഴിയാണവർ ശ്രമിക്കാൻ ഇരുന്നോണ്ട് അപ്പം പിന്നെ ബാങ്കിൽ വല്ല നൂലാമാലകളും അങ്ങനെ എന്തെങ്കിലും എടുക്കാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും വന്നാൽ മാത്രം നമ്മൾ ഫിനാൻസ്കാരെ സമീപിക്കും അങ്ങനെ അവർ വഴി ലോൺ വാങ്ങിക്കും ഇനി ഇപ്പം ലോൺ അടയ്ക്കുമ്പോൾ നമുക്ക് ഇപ്പം പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്ന് നമുക്ക് ഇപ്പോൾ ലോൺ അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ വരികയാണെങ്കിൽ പിന്നെ വീണ്ടും നമുക്ക് അത് അവിടെ ബാധ്യതയായിട്ട് കിടക്കുകയാണ് പിന്നെ ആ കടം വീട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും വേറെ കടം എടുക്കണം അപ്പം അതുവഴി നമ്മുടെ കടം കൂടുക മാത്രം ചെയ്യുന്നത് അപ്പം നമ്മുടെ കയ്യിലുണ്ടവുന്ന വീടും പറമ്പും സ്വത്തുക്കളുമൊക്കെ നമ്മൾക്ക് നഷ്ടമായിട്ടുണ്ടാവും അപ്പം നമ്മുടെ നമ്മുടെ സാമ്പത്തികത്തിന് തന്നെ ആണ് ഇത് ബാധിക്കുന്നത് ഇരുന്നത് കൊണ്ട്